ഇത് മെഡിക്കൽ സ്റ്റോർ ആണോ മരിയൻ ഓക്കെ എനിക്ക് ഒരു പ്രെഷറിന്റെ മരുന്നിന് വേണ്ടിയിട്ട് ആയിരുന്നു ഏതൊക്കെയാണ് ഉള്ളത് ഓക്കെ ക്യാപ്ട്രോള് എത്രയാണ് ഡോസ് എത്രയാണ് ഓക്കെ ഇന്ന് നമുക്ക് ഹെൽത്തിഷ്യു ഇൻഷൂറൻസിൽ അതെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണോ ഈ മരുന്ന് ഓക്കെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഇത് ഡിഫറെൻ്റ് കമ്പനീസിന്റെ വല്ലതും ഉണ്ടോ അ ഓക്കെ റ്റൂ ഹണ്ട്രഡ് റുപ്പീസ് ആണോ റേറ്റ് വരുന്നത്

അ ഓക്കെ ഇത് എത്ര ഏജിൻ്റെ അങ്ങനെ യൂസ് ചെയ്യുന്നത് എത്ര ഏജാണെന്ന് വല്ലതും അങ്ങനെ വല്ലതുമുണ്ടോ എന്തോ കേട്ടില്ല ആണോ കുറച്ചും കൂടെ പ്രായം കുറഞ്ഞ ഒരാൾ ആയിരുന്നു ഒരു തേട്ടി ഫൈവ് ആയിരുന്നു ഏജ് എന്ത് യൂസ് ചെയ്യാമെന്നാണ് ആണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം അതിന് റേറ്റ് സെയിം ആണൊ അതോ റേറ്റിന് വ്യത്യാസമുണ്ടൊ സെവൻ തേട്ടിയൊ അത്ര അത്രയും വ്യത്യാസം ഉണ്ടോ ഓക്കെ അപ്പം അത് ഇൻഷുറൻസിൽ വരുമ്പോൾ എത്ര വരും നമുക്ക് പേ ചെയ്യാനായ്ട്ട് അ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഹോം ഡെലിവറി സർവീസോ വല്ലതുമുണ്ടോ നമുക്ക് അവിടെ വന്നെടുക്കാനുള്ള ടുക്കാനൊള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടോ അ ഓക്കെ എന്നാൽ ഞാൻ അഡ്രസ്സ് പറഞ്ഞ് അയക്കാം ഹോം ഡെലിവറി ആണ് ആ ഓക്കെ